ഞങ്ങളുടെ ഗ്രാമത്തിലെ ജലസേചനത്തിനായിട്ട് നല്ല ഒരുപാട് സൗകര്യങ്ങള് ഉണ്ട് ഇപ്പം വയൽ പ്രദേശങ്ങളിൽ ഇപ്പം നമ്മൾ വിള എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെറിയ ഒരു കുളം പോലെ നമ്മള് കെട്ടിയിട്ട് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളില് ചെറിയ ചെറിയ കുളമാക്കി വച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചാലുകള് ഒഴുകി പോകുന്നുണ്ട് ഇപ്പോൾ അതില് നിന്നൊക്കെ നമ്മൾക്ക് നമുക്ക് വിള നമുക്കാവശ്യമുള്ള വിളകൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാവുന്നതുമാണ് പിന്നെ വലിയ ഇപ്പോൾ പൈപ്പ് ഇട്ടിട്ട് നമ്മൾക്ക് ആ കുളത്തില് നിന്ന് പൈപ്പിട്ടിട്ട് നമ്മൾക്ക് നനച്ചു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള് ചെയ്യാവുന്നതാണ് അത്യവശ്യം വേണ്ട ജലസേചനങ്ങളൊക്കെ ഇവിടെ തന്നെ നമ്മുടെ ഈ കൃഷി ചെയ്യുന്ന ഭൂമിയില് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും വാഴ അതുപോലെ കവുങ്ങ് തെങ്ങ് പിന്നെ നെല്ല് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ കപ്പ പിന്നെ പുല്ല് പുല്ല് ചെയ്യുന്നുണ്ട് പുല്ലെന്ന് വച്ചാല് ഇവിടെയൊക്കെ ഇപ്പോൾ പശുക്കളെയൊക്കെ പശുക്കള് ഒരുപാട് പശുക്കളുള്ള കൃഷി ചെയ്യുന്നതുകൊണ്ടു തന്നെ അവര്ക്കും പുല്ലും അവര്ക്ക് വച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കൃഷികളും അതുപോലെ നല്ല വിളയും ഇവിടെ നിന്നു കിട്ടുന്നുണ്ട്